നമസ്ക്കാരം ഞാൻ സിക്സ്ത് എയിലെ സബരീഷിൻ്റെ പേരൻറ്റാണ്

ആ ഓക്കെ അപ്പോൾ പാരൻറ്റിനെ കൂട്ടി വരാൻ മോൻ പറഞ്ഞായിരുന്നു ആ അറിഞ്ഞു മാം അത് രണ്ട് ദിവസം ഇവിടെ ഞങ്ങൾ സ്ഥലത്തുണ്ടായിരുന്നില്ല അപ്പോൾ അവന് പഠിത്തത്തിലൊന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അത് കൊണ്ടാണ് ആ ആ അതല്ല അവൻ വീട്ടിൽ വന്നപ്പോൾ പറയും ഇന്നൊന്നും ടീച്ചർ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല എന്നാണ് പറയാറ് അപ്പോൾ നോ ആണോ ആ ആ ആ ആ അവൻ വന്ന് കഴിഞ്ഞാൽ ബുക്കൊക്കെ എടുക്കാറുണ്ട് ബുക്ക് എടുത്തിങ്ങനെ നോക്കാറുണ്ട് പക്ഷേ എ പഠിക്കുന്നതാണോ എനിക്ക് കാരണം എനിക്ക് ജോലിയുടെ കുറച്ച് തിരക്ക് കാരണം എനിക്കങ്ങട് കൂടുതൽ ശ്രദ്ധിക്കാനില്ല പിന്നെയിപ്പം ഈ എക്സാം ടൈമില് രണ്ട് ദിവസം ഞാൻ സ്ഥലത്തും ഇല്ലാത്തോണ്ടെ അപ്പോൾ കൂടുതലങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല അതുകൊണ്ടൊള്ളൊരു ഉഴപ്പാണ് അവൻ ഞാൻ ശ്രദ്ധ് അയ്യോ അങ്ങനെ ചെയ്യുന്നുണ്ടോ അവൻ അ ഇതൊന്നും അവൻ വീട്ടില് പറഞ്ഞിട്ടില്ലേ ഇപ്പം മാം പറയുമ്പഴാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത് ആ ആ പിന്നെ പൊതുവെ അവൻ ഈ പഠിത്തത്തിൽ അങ്ങനെ ഒരു താൽപര്യം കാണിക്കാറില്ല എങ്കിലും ഞാൻ നിർന്ധിച്ചിട്ട് അവനെ ഇരുത്ത് ഇരുത്തി പഠിപ്പിക്കാനുണ്ട് ഈ കുറച്ച് ദിവസം ആ ഒരുതിലാണ് കൂടല് കായിക പരമായിട്ടുള്ള കാര്യങ്ങളിലാണ് ഫുട്ബാള് ക്രിക്കറ്റ് അങ്ങനത്ത ഇതിലൊക്കെയാണ് അവന് കൂടുതൽ ഇൻറസ്റ്റെ ആ ആ

ആണോ

ആ മാം ഇത്തവണത്തേക്കൊന്ന് ഒന്ന് ക്ഷമിക്കണം ഇനി അങ്ങനെ പറ്റാതെ ഞാൻ സം ശ്രദ്ധിച്ചോളാം കേട്ടോ ഇപ്പോൾ ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കണം പ്രിൻസിപ്പാൾടെ അടുത്ത് ഒന്ന് സംസാരിക്കണം മാം ഒന്ന് കൂടെ വരണം ആ എന്ത് ഉണ്ടെങ്കിലും വിളിച്ചോളു ട്ടോ ഒരു പ്രശ്നോവില്ല ഞാൻ വേഗം വരാം കേട്ടോ ശെരി മാം ഞാനെന്നാൽ ആ ശരിയെന്ന ശരി മാം ശരി മാം